നേരത്തെ കെട്ടിട്ടുള്ള പാട്ട് പാട്ടുക്കാരുടെ പാട്ട് എന്നുപറയുന്നത് ഉണ്ണി മോനോന് ആണ് ഉണ്ണി മോനോന്റെ പാട്ടുകൾ ഉറപ്പായിട്ടും എല്ലാവര്ക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അതുപോലെ തന്നെ അത് ലൈവ് ആയിട്ട് കേള്ക്കുമ്പോള് അതിന്റെ ഒരു സുഖം അത് വെറേ തന്നെയായിരുന്നു നമുക്ക് ഇനി ഇനി ഇപ്പം ഇനി ഇനി ലൈവ് ആയിട്ട് ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹം എന്നു പറഞ്ഞാല് എനിക്ക് തീര്ച്ചയായിട്ടും ഉണ്ണി മോനോന്റെ പാട്ട് കേള്ക്കാന് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആ പാട്ട് കേള്ക്കാന് വേണ്ടി പോയത് ഇനി പുതിയ ഒരാളെക്കുറിച്ച് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് യേശുദാസിന്റെ പാട്ട് കേള്ക്കാന് ഇഷ്ടം ആണ് ആഗ്രഹം ഉണ്ട് നേരിട്ട് കേള്ക്കണമെന്ന് താൽപര്യമുണ്ട് ആഗ്രഹമുണ്ട്